ഒരു ദിവസം മുഴുവൻ വെള്ളം ആവശ്യമുള്ള വ്യത്യസ്ത ആവശ്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അത് ആ മെയിനായിട്ട് അത് ആർക്കുമറിയാത്തതോന്നുമല്ല ഇപ്പോൾ ഏതൊരു രാജ്യത്താണെങ്കിലും ഏതൊരു രാജ്യമാണെങ്കിലും ഏതൊരു സംസ്ഥാനണെങ്കിലും ഏതൊരു ജില്ലയാണെങ്കിലും ഏതൊരു ഗ്രാമപ്രദേശമാണെങ്കിലും എവിടേ ആണെങ്കിലും ഒരു മനുഷ്യൻ ജീവിക്കണം മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും ജീവിക്കണമെങ്കിൽ നമുക്ക് വെള്ളം ഇല്ലാണ്ട് പിന്നേ പറ്റില്ല അപ്പോൾ വെള്ളം ഇല്ലാണ്ട് നമുക്ക് ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റില്ല നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ഇരിക്കുവായിരിക്കും പിറ്റേ ദിവസം ആകുമ്പഴത്തേയ്ക്കും നമ്മള് നമ്മള് ഡെഡ് ആയിപ്പോകും അപ്പം അത്കൊണ്ട് തന്നേ നമ്മൾ രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് കാപ്പി കുടിക്കണമെങ്കിൽ നമുക്കത് വേണം വെള്ളം വേണം അതുപോലെതന്നെ നമുക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ വെള്ളം വേണം പല്ല് തേക്കണമെങ്കിൽ വെള്ളം വേണം പിന്നേ അത് പോലെ തന്നേ ചോറ് ചോറ് വെക്കണമെങ്കിൽ വെള്ളം വേണം കറി വെക്കണമെങ്കിൽ വെള്ളം വേണം പിന്നേ കുളിക്കണമെങ്കിൽ വെള്ളം വേണം ഇപ്പോൾ നമുക്ക് ഓ ഒരു ദിവസമിപ്പോൾ ഒരാൾ രണ്ടുമൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത് അപ്പം ആ വെള്ളം കുടിക്കണമെങ്കിൽ നമുക്ക് വെള്ളം വേണം നമുക്ക് കാല് കഴുകണമെങ്കിൽ വെള്ളം വേണം കൈ കഴുകണമെങ്കിൽ വെള്ളം വേണം എല്ലാത്തിനും നമുക്ക് വെള്ളം വേണം വെള്ളം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാനേ പറ്റാത്ത ഒരു അവസ്ഥയാണ് പിന്നേ വെള്ളം ഇല്ലെങ്കിൽ നമ്മള് മനുഷ്യന്മാർക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല